പവർ ബാങ്ക് പവർ ബാങ്ക് വളരെ ഒരു നല്ല ബാഡ് പ്രോഡക്റ്റ് ആണ് കാരണം ഞാൻ അത് മേടിച്ചിട്ട് എനിക്കധികം കാലം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വച്ചാൽ അതിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ചാർജ് കയറ്റുമ്പോൾ പവർ ബാങ്കിന് ഓൾറെഡി ഫുൾ ചാർജാക്കി വച്ചിട്ടുണ്ടാകും നൂറ് ശതമാനാക്കി വച്ചിട്ടുണ്ടാകും പക്ഷേ എൻ്റെ ഫോണിലേക്ക് ആകെ കയറണത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെയാണ് കയറണത് എനിക്ക് വളരെ ബാഡായ ഒരു പ്രോഡക്റ്റായിട്ടേ പവർ ബാങ്ക് തോന്നിയിട്ടുള്ളു നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാകും പക്ഷേ ഞാൻ മേടിച്ച പല പ്രോഡക്റ്റും എന്താണ് ഇങ്ങനത്തെ ബാഡ് പ്രോഡക്റ്റ്കളാണ് അതെ എൻ്റെ ഫോണിൽ ഈ ഫോണിൻ്റെ ഡാമേജ് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജ് കേറണില്ല പവർ ബാങ്ക് റീചാർജായത് കൊണ്ട് ചാർജ് അങ്ങോട്ട് കേറണില്ല അങ്ങനെ പല തവണ പല പ്രശ്നങ്ങളും എൻ്റെ ഫോണിനെ കൊണ്ട് ന സിപ്പിച്ചിട്ടുണ്ട് പവർ ബാങ്ക് അതു കാരണം എനിക്ക് പവർ ബാങ്ക് ഉപയോഗം യാതൊരു താല്പര്യവുമില്ല വെരി വെരി ബാഡ് പ്രോഡക്റ്റാണ് പവർ ബാങ്കെന്ന് പറയുന്നത് നമ്മൾ പവർ ബാങ്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ് അതിൽ ഫുൾ ചാർജ്ജാക്കിയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഫോണിലേക്ക് ചാർജ്ജ് കയറ്റാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക പക്ഷേ എനിക്കിനി ആ പവർ ബാങ്കിൽ നൂറ് ശതമാനാക്കി കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് കിട്ടുന്നത് പത്തോ പതിനഞ്ചോ ശതമാനാണ് യാതൊരു താല്പര്യവുമില്ല എനിക്ക് ഈ പവർ ബാങ്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഒന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ എന്താണ് നെഗറ്റീവ്സ് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ ഈ പവർ ബാങ്കുകളോട് പതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്യുകയണെങ്കിൽ എനിക്ക് ഫോണിൽ കയറുന്നതാണ് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഇതെന്താണെന്നെനിക്കറിയില്ല പവർ ബാങ്ക് ഞാൻ മേടിച്ചിട്ടൊരുവിധ പ്രോഡക്ടസൊക്കെ ഇങ്ങനത്തെ ടൈപ്പാണ് വളരെ ബാഡ് പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീല് ചെയ്തിട്ടുള്ളൂ ഈ പവർ ബാങ്കിനെ പറ്റിയിട്ട്